നമ്മുടെ പാലക്കാട് ജില്ലയിലെ പ്രധാന ഭക്ഷണ വിഭവം അല്ലെങ്കിൽ പാരമ്പര്യം ഭക്ഷണ വിഭവം എന്ന് പറയുന്നത് സദ്യയാണ് നല്ല ഒന്നാന്തരം മട്ടരി ചോറും ഇട്ട് വെക്കുന്ന സദ്യയാണ് പുത്തനരി ചോറൊക്കെയായിട്ട് വെയ്ക്കുന്ന സദ്യ പലതരം കറികൾ കൂട്ടാൻ അതേപോലെ അച്ചാറ് എരിശ്ശേരി പുളിശ്ശേരി കിച്ചടി പിന്നെ കായ വറുത്തത് ശർക്കര ഉപ്പേരി അങ്ങനെ പായസം അങ്ങനെ ഇതൊക്കെ അടങ്ങിയ ഒരു ഭക്ഷണ കൂട്ടാണ് സദ്യ എന്ന് പറയുന്നത് അതായത് സാമ്പാർ ആണെങ്കിൽ സാമ്പാർ അതിന് വേണ്ടിയിട്ടുള്ള മസാല ചേരുവകൾ അതുപോലെ ഇതൊക്കെ അടങ്ങിയ ഒരു ജനപ്രിയമായ ഒരു ഭക്ഷണ രീതിയും പരമ്പരാഗതമായ ഒരു ഭക്ഷണവുമാണ് നമ്മുടെ സദ്യ എന്ന് പറയുന്നത്